ആ ആരായിരുന്നു

ആ അതെ അതെ ഞങ്ങൾ ജൈവ കൃഷിയാണ് കൂടുതലായിട്ടും നടത്തുന്നത് നമ്മൾ ഈ പുറത്തുനിന്നൊന്നും നമ്മൾ മരുന്ന് കാര്യങ്ങളൊന്നും വാങ്ങി അടിക്കുന്നൊന്നുമില്ല ഇല്ല ആ മാഡത്തിനിപ്പം ഏതൊക്കെ പച്ചക്കറിയാണ് വേണ്ടത് അതെല്ലാം ഏകദേശം നമ്മളെടുത്തിട്ടുണ്ടാകും കാരണം നമ്മൾ ഒന്നും വിടാണ്ട് തന്നെ ഏകദേശം നമ്മൾ തക്കാളി തൊട്ട് പലതരം പച്ചക്കറികളിപ്പോൾ വിപണിയിൽ ലഭ്യമാണല്ലോ അപ്പം അതെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആ അതെ ഏതാണ് മേഡത്തിന് വേണ്ടതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് ഇപ്പോൾ ഹോൾസെയിൽ റെ വിലയിലാണ് കൊടുക്കുന്നത് നിങ്ങൾക്കിപ്പം റീട്ടെയിൽ ആയിട്ടാണെങ്കിൽ റീട്ടെയിൽ ആയിട്ടും നമ്മൾ തരുന്നതായിരിക്കും എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി ആ അതെ അതെ അപ്പം നിങ്ങൾക്ക് ആ അതെ നല്ലതാണ് വിലയും കുറവാണ് നമ്മുടെ അടുത്ത് ആ അതെ അതെ വിലയും കുറവാണ് നമ്മളിപ്പോൾ ആ എല്ലാം ഉണ്ട് ഇപ്പോൾ ഇഞ്ചി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ നമ്മുടെ അടുത്ത് തന്നെ വിത്ത് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കൂടുതലായിട്ടും ഇഞ്ചി കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇഞ്ചി കൃഷി ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ ഒരു രണ്ട് മൂന്ന് ഏക്കറിൽ ഇഞ്ചി കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പുറത്ത് മഴ മ പ മലഞ്ചരക്ക് കടയിൽ അങ്ങനെയാണ് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്കിനി വേണമെങ്കിൽ എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓരോ അൻപത് ചാക്ക് അങ്ങനെ ഓരോ ചാക്കുകളായിരിക്കും കൂടുതലായിട്ടും നമ്മൾ കയറ്റി വിടുന്നത് അപ്പം നിങ്ങൾക്കെത്രയാണോ വേണ്ടത് അതിൻ്റെ ഡീറ്റൈൽസും എല്ലാ കാര്യങ്ങളും ഒന്ന് ത ചെയ്ത് തരുവാണെങ്കിൽ നാളത്തേക്ക് ചിലപ്പോൾ നമുക്ക് റെഡി ആക്കാൻ പറ്റും കാരണം ഇത്രയും ബൾക്ക് ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ പണിക്കാരെ ആവശ്യമുണ്ടാകും ആ അപ്പം അതിനനുസരിച്ചേ നമുക്ക് റെഡി ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൂടുതൽ പണിക്കാരുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാം പറിച്ച് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ പക്ഷേ ഇന്ന് തന്നെ കൊണ്ടുപോവാനൊന്നും പറ്റില്ല കേട്ടോ ആ അപ്പോൾ ആ ഈ നമ്പറിൽ വാട്സ്ആപ്പ് ഉണ്ട് ഓക്കെ ഓക്കെ ഓ എത്തിച്ച് തരാം അതൊന്നും കുഴപ്പമില്ല ആ ആ ഓക്കെ ഓക്കെ നിങ്ങൾ വാട്സ്ആപ്പ് ചെയ്താൽ മതി